നമുക്ക് മാനസിക സംഘ സംഘർഷം വരുന്ന സമയത്തോ അല്ലെങ്കിൽ മനസ്സിന് ശരിയല്ലാത്ത സമയത്തൊക്കെ എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഡിപ്പെൻറ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് തുന്നല് തന്നെയാണ് അതിൻ്റെ നല്ല രീതിയില് തന്നെയാണോ നല്ല രീതിയില് തന്നെയാണ് അത് ബാധിച്ചിരിക്കുന്നത് അതായത് നമുക്ക് വല്ല ദോഷങ്ങളൊന്നും ഉണ്ടാക്കീട്ടില്ല മനസ്സിന് നല്ല കുളിർമ്മയാ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്ത കാര്യമായത് കൊണ്ട് തന്നെ നല്ല രീതിയില് സമാധാനം കിട്ടുന്നുണ്ട് പിന്നെ ഞാനത് ചെയ്തിട്ട് പുറത്തേക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിന് അത്യാവശ്യം കാശ് കിട്ടണം നമ്മള് ഇടുന്ന കഷ്ടപ്പാടിനുള്ള കാശ് നമുക്കതിൽ നിന്ന് നമുക്ക് സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ട് എന്താണ് ഞാൻ നല്ല നല്ല അവര് പറയുന്ന ഓർഡറുകളനുസരിച്ച് ഓർഡറുകളൊക്കെ വാങ്ങിയിട്ട് അതിനനുസരിച്ച് ഞാൻ തുണിയെടുത്ത് അളവൊക്കെ നോക്കി അവരിൻ്റെ ഇഷ്ടപ്രകാരം അവര് പറഞ്ഞ രീതിയില് ഞാനെന്ത് ചെയ്യും തയ്ച്ചു കൊടുക്കാറാണ് പതിവ് തയ്ച്ചു കൊടുക്കുമ്പോൾ അവര് നമുക്ക് എന്ത് ചെയ്യും അതിൻ്റെ കാശ് നമുക്ക് തരാറുണ്ട് അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മള് വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു പ്രചോദനമൊക്കെ നമുക്കതിൽ നിന്നും കിട്ടാറുണ്ട് ഞാനതങ്ങനെയാണ് നമ്മള് ജീവിതത്തില് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങള് ചെയ്യാനുള്ളൊരു എന്താണ് പണം നമുക്ക് ഞാനിതിൽ നിന്ന് സമ്പാദിച്ചെടുക്കാൻ പഠിത്തത്തിന് വേണ്ടീട്ട് പഠിത്തത്തിന് വേണ്ടീട്ടല്ല മക്കളുടെ പഠിത്തത്തിന് വേണ്ടീട്ടുള്ള പണമൊക്കെ ഞാനിതിൽ നിന്ന് സമ്പാദിച്ചിട്ടെടുക്കാറുണ്ട് പിന്നെ നമ്മള് മെഷീനൊക്കെ ചവിട്ടുന്ന സമയത്ത് നിരന്തരമായിട്ട് നമ്മള് മെഷീനൊക്കെ ചവിട്ടുമ്പോൾ നമ്മക്ക് നമ്മുടെ കാലിനുണ്ടാകുന്ന പെയിനും ഇടുപ്പ് വേദനയൊക്കെ ഉണ്ടാവാറുണ്ട് എന്നിരുന്നാൽ പോലും നമ്മളത് കുറേയൊക്കെ നമ്മള് റെസ്റ്റ് എടുത്ത് ശരിയാക്കും പിന്നെ നമ്മള് കണ്ടിന്യൂസായിട്ട് നമ്മള് ഇരിക്കാറൊന്നുമില്ല നമ്മള് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് അതെന്ത് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്